ഹലോ ഹലോ ഇത് ഗ്രീൻ ഫിഷ് മാർക്കറ്റാണ് ഇതാരാണ് ഓഹ് ഒരു കിലോ പ്രോൺസും ഒരു കിലോ ക്രാബും സാൽമണോ ഹലോ ആ

താങ്കൾക്ക് ഇത് ഇന്ന് തന്നെ വേണോ നാളെ മതിയോ എന്നത്തേക്കാണാവശ്യം ഇന്ന് തന്നെ വൈകുന്നേരം മതിയോ അതോ ഉച്ച ആ ഇതെല്ലാം ഫ്രഷാണ് ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികൾ പിടിച്ചിട്ട് വന്ന ഫ്രഷ് സാധനമാണ് ഇതെല്ലാം ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇപ്പോൾ ഇതിൽ കുറച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മീനുകളെയെല്ലാം അതൊക്കെ കട ആരംഭിച്ച് വരുന്നതേ ഉള്ളൂ സാർ അപ്പോൾ എന്നാലേ ഇത് പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ അത് വേണം ആ സാർ ഒരു ഒരു മണിക്കോ മറ്റോ പോരേ സാർ പതിനൊന്ന് മണിക്ക് തന്നെ വേണോ സാർ നമ്മുടെ ഇവിടെ സ്റ്റാഫുകൾ കുറവാണ് പതിനൊന്ന് മണിയെന്നൊക്കെ പറയുമ്പോൾ വളരേ നേരത്തെ ആണ് സാർ

സാർ ഒരു പന്ത്രണ്ടൊക്കെ ആയാൽ കുഴപ്പം ഉണ്ടോ സാർ ആ സാർ ആ ഓഡർ ഒന്ന് പറയുമോ സാർ സാറേ എന്തൊക്കെ ആണ് ഒരു കിലോ കൊഞ്ച് സാൽമൺ സാറേ ഞാൻ റേറ്റ് പറയാം ഒരു ഒരു ഒരു കിലോ കൊഞ്ചിൻ്റെ വില അറുന്നൂറ് രൂപ ഒരു കിലോ ക്രാബിൻ്റെ വില നാന്നൂറ് രൂപ ഒരു കിലോ സാൽമണിൻ്റെ വില മുന്നൂറ് രൂപ അത് ആ അത് മീനൊക്കെ ഇപ്പോൾ കുറച്ച് ടൈറ്റാണ് സാർ കിട്ടാൻ ഇതിപ്പോൾ വല്ലപ്പോഴുമൊക്കെയാണ് ഈ മീൻ വരുന്നത് സാറെ അങ്ങനെയാണെങ്കിൽ ഞാൻ റേറ്റ് മാക്സിമം കുറയ്ക്കാം സാർ സാർ ഇപ്പോഴ് മൂന്നെണ്ണം ഓഡറ് ചെയ്തതല്ലേ സാർ റേറ്റ് കുറയ്ക്കാം റേറ്റ് കുറയ്ക്കാം സാർ സാറേ അങ്ങനെ ആണെങ്കിൽ കൊഞ്ചിനൊരു ഒരു കിലോയ്ക്ക് ഞാൻ മുന്നൂറ്റമ്പത് ഈ ക്രാബിന് ഒരു കിലോയ്ക്കൊരു നാന്നൂറ് രൂപയും സാൽമണും ഞാൻ ഒരു ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് എടുക്കാം ഓക്കെ അല്ലേ സാർ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് ഇപ്പോൾ വന്നോ സാർ കേട്ടോ പതിനൊന്ന് മണിക്ക് ഞാൻ അയക്കുന്നതാണ് പറ്റും പറ്റും ഓക്കെ ഓക്കെ അല്ലേ സാർ